ആ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ ക്രിക്കറ്റ് ഞാൻ നല്ല രീതിക്ക് ഫോളോ ചെയ്യാറുണ്ടെന്ന് അപ്പോൾ അഭിമാനേതോ അഭിമാനം തോന്നിയ സംഭവമെന്ന് വെച്ചാൽ ഇങ്ങനെ വേൾഡ് കപ്പ് നടന്നായിരുന്നു ടി ട്വൻറ്റി അപ്പം അത് നമ്മൾ ഇന്ത്യ ജയിച്ചായിരുന്നു അപ്പോൾ അത് നല്ലൊരു അഭിമാനമായിരുന്നു അതായത് ഇന്ത്യ കുറേ വർഷം കഴിഞ്ഞ് കപ്പടിച്ചു അത് നല്ലൊരു ഫീലായിരുന്നു ഒരു ജാട ടീമിൻ്റെ ഇടയ്ക്ക് ഒരു ജാട ഇല്ലായിരുന്നില്ല ഒന്നുമില്ലായിരുന്നില്ല എല്ലാം മൊത്തത്തിൽ നല്ലൊരു പ്രൗഡായിരുന്നു നേഷൻ തന്നെയങ്ങ് പ്രൗഡായിരുന്നു നമുക്ക് കാണാമായിരുന്നു അവർ കപ്പ് എടുത്തിട്ട് മുംബൈയിലോട്ടെത്തിയപ്പോൾ എത്ര ജനകൂട്ടങ്ങൾ ഇവിടെ എത്തി എന്നുള്ളത് ടീ വിയിലൊക്കെ കാണുമ്പോൾ നല്ല ഗൂസ്ബം ആയിരുന്നു ലാസ്റ്റ് ഒരുമാതിരി ഒരു സിനിമയിൽ ക്രിക്കറ്റ് കളി വെച്ചാൽ ഫൈനലൊക്കെ എങ്ങനിരിക്കുമോ ആ ഒരു രീതിക്കായിരുന്നു ഫൈനലൊക്കെ ആ സൂര്യകുമാർ യാദവ് ആ എന്താ ബൗണ്ടറിക്ക് അകത്തു പോയി ക്യാച്ച് പിടിച്ച് വെളി ഇട്ട് പിന്നെ വന്ന് ക്യാച്ച് അതൊക്കെ അതൊക്കെ സിനിമയിൽ കാണും പക്ഷെ നമ്മളത്രയും ഇങ്ങനെ പറയുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഗൂസ്ബംസുണ്ട് പിന്നെ ഈ ഹർദ്ദിക് പാണ്ടിയ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കമ്പാക്കായിരുന്നു അതായത് പുള്ളി മുമ്പൈയുടെ ക്യാപ്റ്റനായപ്പോൾ എല്ലാവരും ഭയങ്കര നല്ല രീതിക്ക് ഇട്ട് കളിയാക്കി നോക്കി പുള്ളീനെ ഒന്ന് ഡിപ്രഷനിലാക്കി അതിൻ്റെയിടയ്ക്ക് പുള്ളിക്ക് ഡിവോഴ്സും കിട്ടി പുള്ളി പണി കിട്ടി നല്ല രീതിക്ക് പണി കിട്ടി എല്ലാരൂക്കി ഊക്കി ഊക്കി കൊന്ന് പുള്ളി ഒരുമാതിരി ചാ എന്താ ഡിപ്രഷടിച്ച് ഡിപ്രഷടിച്ച് ചാകേണ്ടൊരു രീതിക്ക് കരയുന്ന രീതിക്കെല്ലാം പോയി എന്താ അത് മുംബൈ ഇന്ത്യൻസിൻ്റെ കളി ഉണ്ടെങ്കിലും ചപ്രീ ചപ്രീയെന്ന് വിളിക്കും എന്താ ഇങ്ങനെ എന്താ ചപ്രീയെന്ന് വിളിച്ചിട്ട് ഒരു പട്ടിയൊക്കെ ഗ്രൗണ്ടിൽ കയറിയപ്പോൾ എന്താ ഹർഡിക്ക് ഹർഡി ഹർഡിക്കിയെന്നു വിളിച്ച് പട്ടീനെ നോക്കി വിളിച്ച് പുള്ളീനെ നോക്കി മൊത്തത്തിൽ ഒന്ന് എന്താ അത് മുംബൈ മുംബൈ ഫാൻസ് ഊക്കിയാലും കുഴപ്പമില്ല അത് മുംബൈ ഫാൻസിന് മനസ്സിലാകും പക്ഷേ മുംബൈ ഫാൻസ് അല്ലാത്ത കുറേ പേരെന്താ ചെന്നൈ ഇങ്ങനെ കുറേ പേരിട്ട് ഊക്കാൻ തുടങ്ങി ഇങ്ങനെ പുള്ളീനെ അതും കൂടിക്കേട്ടപ്പോൾ പുള്ളി എന്താ ഇങ്ങനെ നല്ല രീതിക്ക് പണി കിട്ടി ഇരിക്കുമ്പോഴാണ് വേൾഡ് കപ്പ് വരുന്നത് വേൾഡ് കപ്പിൽ പുള്ളിയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല പുള്ളിയാണ് ജയിപ്പിച്ചത് ഇന്ത്യേനെ പുള്ളിയുടെ ആ ഒരു കം ബേക്കുണ്ടല്ലോ വിഷയമായിരുന്നു പുള്ളി എല്ലാം കളിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളീനെ കാണുമ്പോൾ പുള്ളി കരഞ്ഞു കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പുള്ളിയുടെ അകത്തുള്ള ഈ മറ്റേ ആ എന്താ പെയിനുണ്ടല്ലോ ഈ വേദന ഇത്രയും ദിവസത്തെ ഇതെല്ലാം താങ്ങി പിടിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു കം ബാക്ക് കൊടുക്കുമ്പോൾ എന്താ പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു മൊമെൻറ്റ് ഫീലിയാ പുള്ളിയാണെന്ന് ശരിക്കും ഹാപ്പിയായത് കപ്പിൻ്റെയും മൊത്തത്തിൽ പുള്ളി ഒരു കം ബാക്കും കൊടുത്തു ഇന്ത്യയ്ക്ക് കപ്പും കിട്ടി പുള്ളി നല്ല രീതിക്കൊരു ഹാപ്പിയായി കാണും പുള്ളിയുടെ ഒരു ഫീലിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും പിന്നെ രോഹിത് ശർമ്മ ഞാൻ ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഫാനാണ് പുള്ളിയുടെ കാപ്റ്റൻസിയുടെ അണ്ടറിൽ ടി ട്വൻറ്റി കപ്പ് അടിച്ചത് എനിക്ക് നല്ല രോഹിത്തിൻ്റെ ഫാനായതു കൊണ്ട് അതിലൊരുഭിമാനം ഉണ്ട് പിന്നെ വിരാട്ട് കോലി പുള്ളിനെക്കുറിച്ച് പറയേണ്ട പുള്ളി ക്യാപ്റ്റൻ ഷിപ്പിനെ കാട്ടിലും പുള്ളി ഒരു പ്ലെയറായിട്ട് നല്ല പ്ലെയർ ആണ് പുള്ളി ഒരു നല്ല ടെസ്റ്റ് ക്യാപ്റ്റനാണെന്ന് പറയാം അതിൻ്റെ രീതി നല്ല രീതിക്ക് പറയാം പക്ഷെ മൊത്തത്തിൽ ഒരു ക്യാപ്റ്റനാണോയെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല പക്ഷേ പുള്ളി പ്ലേയറായിട്ട് കളിക്കുമ്പോൾ പുള്ളി പുള്ളീനെ പോലാരും വരത്തില്ല അത് ഉറപ്പാണ് പുള്ളി ഒരു റേജ് മൂഡിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളീനെയൊക്കെ പിടിക്കുകയെന്നൊക്കെ പറയുന്നത് ഭയങ്കര വള്ളിയായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ വേറെന്തുവായെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആ ഇങ്ങനെന്ത്യ അതാണ് ഇന്ത്യ കപ്പടിച്ച ആ ഒരു ഗൂസ്മ്പം മോമെൻറ്റായിരുന്നു പിന്നെ എന്താ രണ്ടായിരത്തി ഇരുപതിൽ എന്താ ഐ പി എല്ലിൽ കണ്ടപ്പോൾ മുംബൈ ഇന്ത്യൻസ് അഞ്ചാമത്തെ ട്രോഫി ഈ പൊക്കിയത് അത് നല്ല രീതിക്കൊരു നല്ലൊരു പരിപാടിയായിരുന്നു പിന്നെ ഇങ്ങനെ അതും അതും നല്ലൊരിതായിരുന്നു അത് ആ വർഷം മുമ്പേ ഇന്ത്യൻസിൻ്റെ കളിയെന്നു പറഞ്ഞാൽ അവർ രണ്ട് കളിയെ തോറ്റത്തൊ തോറ്റിട്ടുള്ളു ലീഗ് മാച്ചിൽ വേറെ ഒറ്റ കളിയും വേറെ ബാക്കിയെല്ലാം അവർ ജയിച്ചു അവർ കളിച്ച കളിയെല്ലാം ജയിച്ചു അതായത് ചെന്നൈയുടെ ശരിക്കും പറഞ്ഞാൽ ആ വർഷം വൃസ്റ്റായിരുന്നു ചെന്നൈ അതായത് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോയി നമ്മുടെ അവിടെയൊക്കെ നമ്മൾ എന്താ ആറ് ഓവറിൽ പവർ പ്ലേയിൽ തന്നെ ആറാമത്തെ ഇത് ഇറങ്ങുന്ന ധോണിനെയൊക്കെ ഇറക്കി ആ ഒരു രീതിക്ക് മൂഞ്ചിയ അവസ്ഥയായിരുന്നു ചെന്നൈയുടെ അപ്പോൾ ആ അപ്പോൾ മുംബൈ മുംബൈ ആ വർഷം നല്ല രീതിക്ക് സീനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുംബൈ എങ്ങോട്ടൊക്കെ പോയി ഇതു വരെ കളിച്ചിട്ടില്ല പക്ഷേ ആ രണ്ടായിരത്തി ഇരുവതില ആ ഒരു കപ്പ് സ്പെഷലാണ് ആ ടീമും കൊള്ളാരുന്നു ആ ഒരു കപ്പും നമുക്ക് എന്തായാലും സ്പെഷലാണ് പിന്നെ വേറെ വേറെ അങ്ങനെ പ്രൗഡടിച്ച മൊമെൻറ്റെന്ന് പറയുമ്പോൾ സുനിൽ ഛേത്രക്ക് എന്താ മൂന്നാമത്തെ സ്ഥാനം കൊടുത്തത് ഫുട്ബോളിലെ ലെജൻ്റ് എന്നു പറഞ്ഞ് ഫസ്റ്റ് എന്താ മെസ്സി റൊണാൾഡോ എന്നും മെസ്സി റൊണ അത് ആർക്കാണ് കൊടുത്തതെന്നറിയത്തില്ല പക്ഷെ അതില് മൂന്നാമത്തെ സ്ഥാനം സുനിൽ ഛേത്രക്ക് കൊടുത്തു അതൊരു നല്ല മൊമെൻറ്റായിരുന്നു പിന്നെ അഭിമാനമല്ല പക്ഷേ സങ്കടപ്പെട്ട ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ മറ്റേ ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ തോറ്റത് ക്രൊയേഷ്യയുടെ കൂടെ ആ സമയം ഞാൻ ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ എന്താ എന്താ ഒരു ഒരു ഗോൾ ബ്രസീൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴി കളി തീരാൻ ഒരു മിനിറ്റും കൂടിയേയുള്ളൂ അപ്പം ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചു അമ്മ ഇങ്ങനെ എൻ്റടുത്ത് പറയാ എടാ ഒരു ഗോളേ അടിച്ചിട്ടോ ഒരു ഗോൾ അടിച്ചു ബ്രസീൽ ബ്രസീലിപ്പോൾ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു കറക്റ്റമ്മ ഫോൺ വിളിച്ച് വെക്കുമ്പോൾ ക്രോയേഷ്യ ഒരു ഗോളിട്ട് ടൈ ആക്കി പെനാൽറ്റി വന്നു പിന്നെ പിന്നെ ഫുള്ള് മൊത്തത്തിൽ മൂഞ്ചി മൊത്തത്തിൽ മൂഞ്ചി അങ്ങനെ ആയിരുന്നു അവസ്ഥ ഇതൊക്കെ ആണ് പറയാനുള്ളത്